ഉത്സവ സീസണുകളിൽ നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ട്ടമുള്ള ഒരു വിഭവമാണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം ഞാനെന്തായാലും നിർബന്ധമായിട്ടും ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും അതിഷ്ടമാണ് പിന്നെ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ അറിയുന്ന വിഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇഷ്ടമുള്ള മറ്റൊരു വിഭവമുണ്ട് പക്ഷെ അത് ഞാൻ ഉണ്ടാക്കാൻ എനിക്കറിയില്ല അരിയുണ്ട എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് അതെൻ്റെ അമ്മച്ചി നന്നായിട്ട് എനിക്കുണ്ടാക്കി തരാറുണ്ട് ആ അത് ശർക്കരയും തേങ്ങയും അരിയൊക്കെ വച്ചിട്ടുള്ളൊരു വിഭവമാണ് അത് എല്ലാ നാട്ടിലും ഉണ്ടോ എന്നെനിക്കറിയില്ല ഈ നാടിൻ്റെ സ്പെഷ്യലിറ്റിയാണ് അരിയുണ്ട അവലോസുണ്ട എന്നാണ് അതിന് യഥാർത്ഥത്തിൽ പറയുന്നത് അത് ആ അരിയും തേങ്ങയും ചേർത്ത് നന്നായിട്ട് സോക്ക് ചെയ്തിങ്ങനെ വച്ചതിന് ശേഷം വറത്തെടുത്തിട്ട് തേങ്ങയുടെ ചെരണ്ടിയ ഇത് വറുത്തതും